വാർത്തകൾ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെടാറുണ്ട് സപ്പോസ് ഇപ്പം ഞാൻ സാധാരണ കാണുന്ന ഒരു പരിപാടിയാണ് ന്യൂസ് അവർ ഏഷ്യാനെറ്റിൻ്റെ ഒരു മണിക്കൂറ് നേരം ആ ദിവസത്തെ അല്ലങ്കിൽ അതിലെ തലേ ദിവസത്തെ ഏതെങ്കിലും ഒരു നല്ല സംഭവമായി ബന്ധപ്പെടുത്തി കുറേ കാര്യം കുറേ ഒരു നാല് പേര് ഇരുന്ന് ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല രാഷ്ട്രീയമായിട്ട് ആണ് എല്ലാവരും സംസാരിച്ച് അവരവരുടെ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച് അവരവരുടെ പാർട്ടിയെ ഒന്ന് ലെവൽ ആക്കി എടുക്കാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് അല്ലാതെ പൊതുജനങ്ങളുടെ താൽപ്പര്യത്തിന് വേണ്ടിയാരും പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ന്യൂട്രല് ആയിട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയത്തിൻ്റെ അതി പ്രസരമാണ് എല്ലാത്തിലും കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും ഒരാൾ തിരുവനന്തപുരത്ത് കാനയിൽ മുങ്ങി പോയി മരിച്ച ഒരു വ്യക്തി അതിലും അതിൻ്റെ ശരിയായ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും റെമഡികൾ മെഷീൻസ് കണ്ട് പിടിക്കാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല എൻ്റെ വിഷയമല്ല ഇത് ഞങ്ങളുടെ ഡിപ്പാർട്മെൻറ്റിൻ്റെ തകരാറുമല്ല ഇത് റെയിൽവേടെ കുറ്റമാണ് അല്ലങ്കിൽ മറ്റാരുടെയെങ്കിലും കുറ്റമാണെന്ന് വെച്ച് മറ്റുള്ളവരുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആദ്യം നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു കുറ്റമാണ് ആരും അവരവരുടെ കുറ്റങ്ങളെ ഏൽക്കാൻ താൽപ്പര്യപ്പെടുന്നവരല്ല മറ്റുള്ളവരെ പഴിചാരി രക്ഷപെട്ട് പോകാനാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ചുവട് പിടിച്ചാണ് ഇപ്പം എല്ലാവരും തന്നെ നീങ്ങുന്നത് അങ്ങനെ ഈ ഏത് വിഷയം വന്നാലും ഒരു ചർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം മലയാള ഈ മനോരമേലാണേലും ഏഷ്യാനെറ്റിലാണേലും ഏത് ചാനലുകളിലാണേലും ചർച്ചകളൊക്ക ധാരാളം നടത്തുന്നുണ്ട് ആ ചർച്ചകൾ അന്ന് അവസാനിക്കുമ്പോൾ ആ വിഷയം അവസാനിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല ഇപ്പം പത്രങ്ങൾക്കാണെങ്കിൽ പോലും ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുമായി കൂറ് കാണിക്കുന്നവരാണ് പത്രങ്ങളുവൊക്കെ ഇപ്പം മനോരമക്കാണെങ്കിലും ഓരോരോ ഓരോ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണവർ ന്യൂസൊക്കെ കൊടുക്കുന്നത് അവരെ ഏതെങ്കിലും രീതിയിൽ അവരുടെ കുഴപ്പമല്ല എന്ത് സംഭവിച്ചാലും അത് നമുക്ക് മറ്റുളളവരുടെ കുഴപ്പങ്ങളാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് എല്ലാ പത്രങ്ങളും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളും ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സത്യസന്ധമായ രീതിയിലുള്ള നിയമപ്രവർത്തനങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയപാർട്ടിയെ പൊക്കാൻ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ഉയർത്തിക്കാട്ടാനും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമെന്നുള്ളതിൽ കവിഞ്ഞ് ഇതെല്ലാം ഒരു പ്രഹസനമെന്നുള്ള രീതിയിലേ ഉളളൂ ശരിയാണ് അവരെ ആനുകാലിക കാര്യങ്ങൾ ഒരു ദിവസം ഉയർത്തിപ്പിടിക്കും പിറ്റേ ദിവസം അത് സൗകര്യപൂർവ്വം അങ്ങ് മറന്ന് കളയുക എന്നുള്ളതാണ് കാരണം അത് നമ്മുടെ സമൂഹത്തിനും നല്ല ഒരു കാര്യമാണ് കാരണം ഒരേ വിഷയം തന്നെ എന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർക്കൊന്നും യാതൊരു താൽപ്പര്യം ഉണ്ടാകുകേല അതുതന്നെയല്ല ആ വിഷയത്തിന് എന്തെങ്കിലും ഒരു റെമഡി കണ്ട് പിടിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് മറ്റുള്ളവർക്ക് തോന്നണം എന്ന് ഈ പറയുന്ന ആൾക്കാകർക്കൊന്നും ഒരു താൽപ്പര്യവും ഇല്ല ഇന്ന് വന്ന് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കുറേ കുറ്റം പറയുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന് എന്തെങ്കിലും ശാശ്വതമായ പരിഹാരം കാണുകയോ അത് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സജഷൻസ് വെക്കാനോ ഒന്നും ആർക്കും വലിയ താൽപ്പര്യം ഇല്ല ഇനി സജഷൻസ് വെച്ചാൽ പോലും നമ്മുടെ രാഷ്ട്രീയ അധികാരികൾക്കൊന്നും അതിൽ വലിയ താൽപ്പര്യം ഒന്നും ഇല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പം ആൾക്കാരെ ഈ ജനങ്ങളെ ഒന്ന് ഉയർത്തി കാട്ടണമെന്നോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ ഉള്ള യാതൊരു താൽപ്പര്യവും ഇല്ല ഓരോ ദിവസവും എങ്ങനെ എങ്കിലും കഴിച്ച് കൂട്ടണം ഇന്നത്തെ പ്രശ്നങ്ങളുയർത്തി പിടിച്ചുകൊണ്ട് നാളെയും വന്നാൽ അത് അവരുടെ ഒരു സൽപ്പേരിനെ കളങ്കമുള്ളതായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നം ഇന്ന് കൊണ്ട് തീർന്നു അത് പിന്നെ നാളെ ആരും അതുയർത്തി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെയും ചിന്താഗതി അങ്ങനെ വരുമ്പോഴ്ത്തേക്കും പ്രത്യേകിച്ചൊന്നും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലൊന്നും തന്നെ സംഭവിക്കാറില്ല ഇന്ന് സംഭവിക്കുന്നു നാളെ അതങ്ങ് വിസ്മരിക്കപ്പെടുന്നു നാളെ പുതിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ നോക്കിയിരിക്കുന്നത് കാരണം പഴയ കാര്യങ്ങളൊക്കെ ജനങ്ങൾ സൗകര്യപൂർവ്വം മറന്ന് പോകണമെന്നും എന്നുള്ളത് അവരെ ആത്മാർഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ പറയുന്ന പത്രവാർത്തകളൊക്കെ എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു വലിയ ആത്മാർഥതയൊന്നും ഇല്ല ഇന്നൊരു ന്യൂസ് അവർക്ക് അവർക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ ന്യൂസുകൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം അത് ജനങ്ങളിലേക്ക് എത്തിക്കണം അതേപ്പറ്റി പിന്നീടൊരു ചർച്ചയോ ഒരു അവലോകനമോ ഒന്നും ഉണ്ടാകണമെന്ന് അവർക്ക് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കും താൽപ്പര്യം ഇല്ല പത്രക്കാർക്കും താൽപ്പര്യം ഇല്ല കാരണം ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഒരാഴ്ചക്ക് ശേഷം ആ പത്രങ്ങളോ അല്ലെങ്കിൽ ആ രാഷ്ടീയക്കാരോ ഒന്നും സംസാരിക്കാറോ അതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുമില്ല ഇതൊക്കെ എല്ലാം ഒരു പ്രഹസനമെന്നുള്ള രീതിയിലേ ഉള്ളൂ ഇത് കൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണകരമായി ഒന്നും തന്നെ സംഭവിക്കാനും ഇല്ല സംഭവിക്കാനൊട്ടു പോകുന്നുമില്ല ഇത് ഇങ്ങനെ നടന്ന് കൊണ്ടേ ഇരിക്കും ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വന്ന് കൊണ്ടിരിക്കും നാളെ അത് തമസ്കരിക്കപ്പെട്ട് പോകും അല്ലാതെ വേറെ ഗുണങ്ങളൊന്നും ആർക്കും തന്നെ ഉണ്ടാകുകയില്ല പിന്നെ ഓരോ ദിവസം പുതിയ പുതിയ ന്യൂസുകള് വായിക്കാനും ഇത് ഇപ്പം ടി വി ചാനലുകളിലൂടെയാണെങ്കിലും അതൊക്കെ കേൾക്കാനും അതിൻ്റെ കുറേ ഫോട്ടോസോ ഒക്കെ കണ്ട് അന്നത്തെ ഒരു സായൂജ്യമണയുക എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നും രാഷ്ട്രീയക്കാർക്ക് ആവശ്യമില്ല ഈ പറയുന്ന ജനങ്ങളും ഇപ്പോൾ ഉള്ള എല്ലാവരും ഒരു മാതിരി നിസ്സംഗരായി ജീവിക്കുന്നവരാണ് അത് കാരണം അവരും പ്രത്യേകിച്ച് വലിയ താൽപ്പര്യങ്ങളൊന്നും കാണിക്കാറില്ല ഇത് ഇങ്ങനെ വരുന്നു ഇതൊരു ഡെയിലി റുട്ടീൻ വർക്ക് ആയിട്ട് തീർന്നിരിക്കുകയാണ്